ഓട്ട മത്സരം എനിക്ക് ഏറ്റോഷ്ടപ്പെട്ട ഒരു മത്സരം ഒരു ഇതാണ് എൻ്റെ മത്സരങ്ങളിലും ഇതിൻറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോള് ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടത്തിന് എപ്പോഴും തന്നെ എനിക്ക് സമ്മാനം കിട്ടുമായിരുന്നു പക്ഷെ ഒരു പ്രാവശ്യം ഓട്ടത്തിന് ഓട്ട മത്സരത്തിന് പങ്കെടുത്തപ്പോള് ഞാനങ്ങ് അവസാനം അടുക്ക ഒരു പത്ത് മീറ്ററും കൂടെ ഒ ഉണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഞാന് തട്ടി വീണ് എനിക്ക് എത്താനായിട്ട് പറ്റിയില്ല അപ്പോഴത് എനിക്ക് അത് ഒത്തിരി വിഷമമായി പക്ഷെ അത് വീണ് എല്ലാവരും എന്നെ കളിയാക്കി കളിയാ പെട്ടെന്നുതന്നെ എല്ലാവരും എന്നെ ഓടി വന്ന് എന്നോട് സഹതാപമൊക്കെ പ്രകടിപ്പിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഞാനും ഇത് തമാശായിട്ടാണതിനെ എടുത്തത് അങ്ങനെ ഓട്ട മത്സരം എനിക്കൊരു സ്കൂള് ഇപ്പോള് ഞാന് വർക്ക്യെയ്യുന്ന ആ സ്ഥലത്താണെങ്കിലും അ കുട്ടികളുടെ ഓട്ട മത്സരവും കുട്ടികളെ തെ ഓടിക്കാനും ഓട്ട മത്സരത്തില് പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനായിട്ടൊക്കെ എനിക്ക് ഒത്തിരി താൽപര്യമാണ് പിള്ളേരെ അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഞാൻ കൊടുക്കുകയും പിള്ളാരോടൊപ്പം ഓടാൻ വേണ്ടിയിട്ട് ഓടി പിള്ളാരെ ഞാനൊരു സ്പെഷ്യൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അപ്പോള് ഞാൻ പിള്ളാരെ അവര് ഓടാൻ വേണ്ടിയിട്ട് ഞാന് ഓടിക്കാണിക്കും അപ്പോഴല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഓടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം ഓടാൻ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ഓടാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിള്ളാരുടെ കൂട്ടത്തില് ഓടുകയും എക്കെ ചെയ്യാറായിട് ചെയ്യാറുണ്ട് അതൊരു ഒത്തിരിയെനിക്കത് ഇഷ്ടമാണ് ഒരു രസമായിട്ട് ആണ് ഞാനതിനെ പലപ്പോഴും കാണാറുള്ളത്